ഞാൻ ജൂലൈ ഓഗസ്റ്റ് മാസം അല്ല ഇത് സെപ്റ്റംബര് സെപ്റ്റംബര് മാസം ഒമ്പതാം തീയതി ഒരു ഓർഡർ ചെയ്തു ഓർഡർ ചെയ്തിട്ട് എനിക്ക് സാധനം കിട്ടാന് ലേറ്റ് ആയി ഞാൻ ഫ്ലിപ്പ്ക്കാർട്ടിലാണ് ഓർഡർ ചെയ്തത് ഓണ്ലൈൻ ഓണ്ലൈൻ ആയി ഒരു സ്മാർട്ട് ഫോൺ ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത് ഓർഡർ എന്തായി ഞാൻ ഓണ്ലൈന് പൈസയും കൊടുത്തു പക്ഷേ എനിക്ക് അതിന്റെ വരാന് താമസിച്ചപ്പോൾ ഞാൻ അതിന്റെ ഓർഡർ ചെക്ക് ചെയ്യാനായിട്ട് അതിന്റെ സ്റ്റാറ്റസ് അറിയാന് വേണ്ടിയിട്ട് ഞാൻ ഫ്ലിപ്പ്ക്കാർട്ട് ന്റെ ഓർഡറിൽ ഫോമിലെടുത്ത് ഫോം എടുത്തു അത് ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്തിട്ട് അതിന്റെ സ്റ്റാറ്റസ് നോക്കി സ്റ്റാറ്റ് നോക്കിയപ്പം എനിക്ക് കൃത്യമായിട്ട് അതിന്റെ ഡെലിവറി എവിടം വരെ ആയെന്നും എവിടെയാണത് ഇപ്പോഴുള്ളതെന്നും എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ എനിക്ക് മനസ്സിലായി അത് ഷിപ്പില് ഷിപ്പ് വഴി ട്രാന്സ്പോർട്ട് ചെയ്തിട്ട് എറണാകുളത്ത് എത്തി എറണാകുളത്തുനിന്ന് ഞാൻ അതിനെ അപ്പോൾ എവിടെ ആണെന്ന് അതിന്റെ ഓഫീസിന്റെ വിവരങ്ങൾ കാര്യങ്ങൾ എല്ലാം എനിക്ക് ഫ്ലിപ്പ്കാർട്ടിലൂടെ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റി അത് ഇത്ര ദിവസത്തിനുള്ളിൽ അതായത് ഇനിയും വിത്തിന് ടു ഡേയ്സ് എനിക്കത് റിസീവ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് കിട്ടിയ ഇന്ഫൊര്മേഷന്